ഭക്ഷണം ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈലില് ആദ്യം ആപ്പ് എടുക്കുക എന്നിട്ട് ആ സൊമാറ്റോ സൈറ്റിൽ കയറി ഫുഡ് ഓർഡർ എടുക്കുക ഫുഡ് ഓർഡർ ക്ലിക്ക് ചെയ്തതിനുശേഷം ആഡ് ലിസ്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം മൈ ഓർഡർ ഓപ്ഷൻ എടുത്തിട്ട് അതില് കൂപ്പൺ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കൂപ്പണുണ്ടോ എന്ന് പരിശോധിച്ചതിനുശേഷം കൂപ്പൺ ഉണ്ടെങ്കിൽ ഓക്കേ കൊടുക്കുക ഓക്കേ കൊടുത്തതിനുശേഷം നമുക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിൽ ഏത് ഫുഡ് എവിടെ ഒക്കെ കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് താല്പര്യം ഉള്ളിടത്ത് നിന്ന് വേണേൽ ഒക്കെ ആക്കിയിട്ട് അവിടത്തേക്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഓഡർ പ്ലെയ്സ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് കുറഞ്ഞ ചെലവില് ഭക്ഷണം എത്തും സുഖമായിട്ട് കഴിക്കാം